ആ അതെ അതെ അതെ ഓക്കെ ആണല്ലേ അത് നമ്മുടെ പണിക്കാരുടെ ഒരു കഴിവാണ്

അതിത് സ്ഥാപനം എൻറ്റെയാണ് അപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നു അതേയതെ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ പണിക്കാരെ വെച്ചേക്കുവാണ് അതെ അതെ നമ്മളിത് ഒരു ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അതേതാ ആ ആ അല്ല അതേതാ ഐറ്റം എന്ന് പറയുവാണേൽ നമുക്കത് സെറ്റ് ചെയ്യാമായിരുന്നു മ്മ് ഓ ശരി ശരി ശരി ആ ബുദ്ധൻറ്റെയല്ലേ ആ ഓക്കെ ഓക്കേ അതെ അതെ ഓക്കേ ഓക്കെ ഓക്കെ നമുക്കത് മാന്യമായിട്ടുള്ള വിലയ്ക്ക് അത് ഡീല് ചെയ്യാമേ തിർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അത് നമ്മൾ പാരമ്പര്യമായിട്ടുള്ളതാണ് വല്ല്യപ്പനൊക്കെയായിട്ടുള്ളതാണ് ആ അപ്പൂപ്പനായിട്ട് തുടങ്ങിയതാണ് മ്മ് ഒരു പത്തമ്പത് കൊല്ലം മേളിലായി മ്മ് അതെ അതെ മ്മ് ഞങ്ങൾക്കിവിടെ മൊത്തം മുപ്പത്തിമൂന്ന് പേരുണ്ട് ആ ഓക്കെ ഓക്കെ

മ്മ് അപ്പോൾ ആ അതേയതെ അതെ ആ അത്യാവശ്യം ഒരേക്കറ് ഒരേക്കറ് ഓർഡേഴ്സ്സ് ഇഷ്ടംപോലെ വരാറുണ്ട് മ്മ് ഇന്ത്യക്ക് പുറത്തുനിന്നും വരുന്നുണ്ട് വരുമാനം മെച്ചമാണ് കാരണം ഇത്ര ഡിമാൻറ്റ് ഉള്ളത് കൊണ്ടേ മുടക്ക് കുറവാ കുറവാണ് മ്മ് ഇതിൻറ്റെ ക്വാളിറ്റീലാണ് അതായിത് നമ്മുടെ സാധനങ്ങൾ വിറ്റ് പോവുന്നതിനനുസരിച്ചിരിക്കും

തിരിച്ച് കിട്ടും പത്തും പത്തിന് മേളിലും പോവാറുണ്ട് കിട്ടും കിട്ടും പത്തിന് മേളിലും പോവാറുണ്ട് ഡിമാൻറ്റിനനുസരിച്ചാണ് കാര്യങ്ങൾ മ്മ് നമുക്ക് വേണ്ട പീസ്സ്കൾ ഓക്കെ ഓക്കെ ശരി ശരി ഇടയ്ക്ക് ഇറങ്ങിയാൽ മതി ഞാനത് പറഞ്ഞുതരാം ആ അതെന്നത്തേക്ക് വരുമെന്നേ ഓ ശരി ശരി അപ്പത്തേക്കും ഞാനത് അവൈലബിള് ആയിട്ട് സ്ഥലം അടിമാലി ടൗണിന് നടുക്കായിട്ട് തന്നെ ആ പമ്പിൻറ്റടുത്തായിട്ട് ഓക്കെ ഓക്കെ വേറേ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ ശരി